മാർച്ച് ഇരുപത്തൊമ്പതെന്നു പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ തന്നെയാണ് എന്താണെന്നു ചോദിച്ചാൽ അന്നെൻ്റെ ബർത്ത്ഡേയാണ് അന്ന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ചെറിയ രീതിയിൽ ഫാമിലീൻ്റെ കൂടെ ആഘോഷിക്കുകയൊക്കെ ചെയ്യും അതുപോലെത്തന്നെ ഏപ്രിൽ ഫോർത്ത് എൻ്റെ പാരൻ്റ്സിൻ്റെ വെഡ്ഡിങ്ങ് ആനിവേഴ്സറിയാണ് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു ഡേ ആണെനിക്ക് അതേപോലെത്തന്നെ ഞാനേറ്റവും കൂടുതൽ വാല്യു കൊടുക്കുന്ന ഒരു ഡേ തന്നെയാണ് അവരെന്നു പറയുമ്പോൾ എനിക്കത്രയും ഇമ്പോർട്ടൻ്റായ പേഴ്സൺസാണ് എൻ്റെ ലൈഫിൽ എന്നു പറയുന്നത് എൻ്റെ ഹാപ്പിനെസ്സ് എന്നൊക്കെ പറയാമല്ലോ അതേപോലെത്തന്നെയാണ് പിന്നെ മെയ് ട്വൻ്റി സെവൻത് എനിക്കൊരു സിസ്റ്ററുണ്ട് അവളുടെ ബർത്ത്ഡേയാണ് അന്ന് ഞങ്ങൾ ഭയങ്കര അടിപൊളിയൊക്കെ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ് എൻ്റെ ഈ സീക്രട്ട് പാർട്നർ എല്ലാംകൊണ്ടും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവളു തന്നെയാണ് അപ്പോൾ അവളുടെ ബർത്ത്ഡേയെന്നു പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റാണ് എനിക്ക് എൻ്റെ ലൈഫിൽ അതേപോലെത്തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് അവളുടെ ബർത്ത്ഡേ നവംബർ ട്വൻ്റി സെവെൻതാണ് ഞങ്ങൾ ഈ ചെറുപ്പം തൊട്ടേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന അങ്ങനെ അത്രയ്ക്കും ക്ലോസ്സായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവളോടാണ് അപ്പോൾ അവളുടെ ബർത്ത്ഡേയും അതേപോലെത്തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എനിക്ക് പിന്നേയെന്നു പറയുമ്പോൾ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേയാണ് അവൻ്റെ എന്ന് പറയുമ്പോൾ മാർച്ച് ഫസ്റ്റിനാണ് അവൻ്റെ ബർത്ത്ഡേ അവനിപ്പോൾ ഒരു വയസ്സ് ആകാൻ പോവുന്നതേ ഉള്ളൂ എന്നാലും അത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ബർത്ത്ഡേ തന്നെയാണ് അവൻ്റെയും എന്നു പറയുന്നത്